ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത് മറ്റു രാജ്യങ്ങള വച്ചു നോക്കുമ്പോൾ ഇന്ത്യയിലാണ് മറ്റു രാജ്യങ്ങളേക്കാൾ ഏറ്റവും കൂടുതൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നത് നമ്മളുടെ മാതൃഭാഷയായ ഹിന്ദി മുതൽ അല്ലെങ്കിൽ മറാത്തി നമ്മുടെ ജനഗണമന ദേശീയ ഗാനമുള്ള മറാത്തി മുതൽ നമ്മൾ ഇപ്പോൾ യൂറോപ്പിയൻ രാജ്യങ്ങൾ മറ്റെല്ലാവും വൈഡായിക്കൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ അതുപോലെ അറബി അല്ലെങ്കിൽ ഉറുദു തമിഴ് തെലുങ്ക് ആന്ധ്ര കന്നഡ അങ്ങനെ വ്യത്യസ്ത വ്യത്യസ്ത ഭാഷകളാണ് നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നത് നമ്മളെ ഹിന്ദി ഹിന്ദിയാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും വയ്ഡ് എല്ലാ ജനങ്ങളും അധിക ജനങ്ങളും അറിയുന്നതും അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതുമായ ഭാഷ എന്നുള്ളത് ഹിന്ദിയാണ് അപ്പം മറ്റു രാജ്യങ്ങളെ വച്ചു നോക്കുമ്പോൾ ഇപ്പോൾ യൂറോപ്പ്യൻ രാജ്യങ്ങളിൽ വച്ചു നോക്കുമ്പോൾ അവിടെ എല്ലാവരും ഏകദേശം ആൾക്കാരും എല്ലാ രാജ്യങ്ങളും അല്ലങ്കി അവർ എല്ലാ സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് ഉപയോഗിച്ചു വരുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ് പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളം മുതൽ കാശ്മീർ വരെ നോക്കുമ്പോൾ കേരളത്തിൽ വച്ചു നോക്കുമ്പോൾ മലയാളത്തിലാണ് കേരളം കഴിഞ്ഞു പിന്നെ കർണാടക എത്തുമ്പോൾ കന്നഡ തമിഴനാടെത്തുമ്പോൾ തമിഴ് പിന്നെ അങ്ങനെ തെലുങ്കാന എത്തുമ്പോൾ തെലുങ്ക് ഗുജറാത്തി അവിടെ എത്തുമ്പോൾ ഗുജറാത്തി ഓരോ രാജ്യങ്ങൾക്കും അല്ല ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ഭാഷ ഉണ്ട് അങ്ങനെ ജമ്മു എത്തുമ്പത്തിന് ഉർദു അല്ലെങ്കിൽ ഹിന്ദി എന്നുള്ള ഒരു പ്രാധിനിധ്യം വരികയാണ് അപ്പം ഏകദേശം അപ്പം ജമ്മു കാശ്മീർ മുതൽ ഇന്ത്യ കേരളം വരെ നോക്കുമ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ബേസിക് ഭാഷയെക്കുറിച്ചുള്ള അതായത് ഉർദു അല്ലെങ്കിൽ ഹിന്ദി പിന്നെ മലയാളം ഈ മൂന്നു ഭാഷയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ടച്ച് എങ്കിലും നമ്മൾ ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന സംസ്ഥാനങ്ങളിലും ആൾക്കാരുണ്ടാവും അതാണ് ഇന്ത്യയിലെ ഭാഷ വൈവിധ്യത്തെക്കുറിച്ചു പറയുമ്പം പറയാനുള്ളത് പിന്നെ നമ്മളെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരും എല്ലാവരും നമ്മെ ഇന്ത്യയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതാണ് നമ്മൾ ഇന്ത്യയിലെ ഭാഷ വൈവിധ്യം എന്നുള്ളത് അതായത് നമ്മൾ പൂർവികന്മാർ മുഖേനത്തന്നെ നമ്മൾ പരസ്പരമുള്ള സഹോദര്യം നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള സഹോദര്യം അത ഈ ഭാഷ ഭാഷ മുഖേനയുള്ള വിവേചനം അതൊന്നും നമ്മളെ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ മറ്റു രാജ്യങ്ങളിൽ ഭാഷയെക്കുറിച്ചുള്ള വിവേചനം അല്ലെങ്കിൽ അതിനുള്ള കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം മറ്റു മറ്റു രാജ്യങ്ങൾ നമ്മളെ ഇന്ത്യയിലേക്ക് ഉറ്റു നോക്കുന്നത് എന്താണെന്ന് വച്ചാൽ നമ്മളെ ഇന്ത്യയിലുള്ള ഭാഷ വൈവിധ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മളെ ഇപ്പം കേരളത്തിലാണെങ്കിൽ തന്നെ നമ്മളെ കേരളത്തിലെ മലയാളം ഭാഷ നമ്മളെ ലക്ഷദീപിൽ വരെ ഉപയോഗിക്കാൻ നമ്മളെ കേരളത്തിൽ പെട്ടതല്ല എന്നുണ്ടെങ്കിലും ലക്ഷദീപിൽ വരെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ ഇന്ത്യയിലേക്ക് ഹിന്ദി ഭാഷ അല്ലെങ്കിൽ മലയാള ഭാഷ പഠിക്കാനായിട്ട് നമ്മളെ കേരളത്തിലേക്ക് നമ്മളെ ഇന്ത്യയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് ഇപ്പ നമ്മൾക്ക് അറിയാം ഇപ്പം പുറത്തുള്ള ഒരു സായിപ്പ് അല്ലെങ്കിൽ ഒരു മദാമ്മ ആണിന്ത് മലയാളം മലയാളം നമ്മളെ ഇന്ത്യയിലുള്ള ഭാഷയ മലയാളത്തെക്കുറിച്ച് പഠിച്ചിട്ട് അവിടുത്തെ ആളുകൾക്ക് മലയാളം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് അത്രയും അത്രത്തോളം നമ്മൾ മലയാളം ഭാഷ വളന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു കുറച്ചു നമ്മൾ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മെ ഹിന്ദി മറാത്തി പിന്നെ അതുപോലെ ഉറുദു ഭാഷ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കൃത്യമായി അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിച്ചു വരുന്നത് ഉർദു അല്ലെങ്കിൽ ഹിന്ദി ഭാഷയാണ് അപ്പം നമ്മളെ ഈ താഴത്തേക്ക് കേരളം ഭാഗത്തുള്ള സംസ്ഥാനങ്ങൾക്കും ഉർദു അല്ലെങ്കിൽ ഹിന്ദിയുമായിട്ടുള്ള ചെറിയ ടച്ച് വരുന്നുണ്ട് ഓക്കെ താങ്ക് യു